നൃത്തം ഒരു കലയാണ് അത് ജന്മനാ കുട്ടികളില് ഉണ്ടായിവരുന്ന ഒരു രീതിയാണ് അത് എൻ്റെ മകൾക്ക് ചെറുപ്പം മുതലെ ഡാൻസ് കളിക്കാനൊരു താല്പര്യം ഉള്ളതുകൊണ്ട് ഞാനവളെ ഡാൻസിനു ചേർത്തു അവള്ക്ക് ഡാൻസ് പഠിച്ച് ഡാൻസ് ടീച്ചറാവണം എന്നൊക്കെയാണ് ആഗ്രഹം അപ്പോള് ഞാനതിനെ അവളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അവള്ക്കതിനുള്ള കഴിവുണ്ട് കളിക്കാനും ചെറിയ കുട്ടിയാണെങ്കിലും ഇപ്പഴേ ഡാൻസ് പഠിച്ചുകഴിഞ്ഞാല് അവൾക്കത് വളർന്നു പിന്നെ വേറെയുള്ള കുട്ടികളിൽ എത്തിക്കാനും പങ്കെടുക്കാനും എല്ലാ പരിപാടിയും പങ്കെടുക്കാനും എല്ലാം അവൾക്ക് പറ്റും നമുക്കു പറ്റാത്തത് നമ്മുടെ മക്കളെക്കൊണ്ട് സാധിക്കണം സാധിപ്പിക്കണം എന്നാണ് ആഗ്രഹം എനിക്കു വളരെ പണ്ട് വളരെ ഇഷ്ടമായിരുന്നു ഡാൻസ് പഠിക്കാനൊക്കെ പക്ഷേ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും അച്ഛൻ്റെ അമ്മേൻ്റെ ബുദ്ധിമുട്ടും കൊണ്ട് നമ്മളതു പഠിക്കാനൊന്നും പോയിരുന്നില്ല പക്ഷേ ഇന്നുള്ള കുട്ടികൾക്ക് ഒരുപാട് പിന്നെ സ്റ്റേജുകളുകളും ഒരുപാട് രീതിയിൽ പഠിക്കാനും എല്ലാത്തിനുമുള്ള കഴിവുകള് കിട്ടുന്നുണ്ട് സാഹചര്യങ്ങളുണ്ട് നമ്മള്ക്കില്ലാത്ത പലതും അവർക്കുണ്ട് അപ്പോള് അവരെ നമുക്കു പഠിപ്പിച്ച് ഡാൻസിൻ്റെ പല വലിയ രീതിയില് വലിയ നിലയിലെത്തിക്കണം എന്നുള്ള ഒരാഗ്രഹം എനിക്കുണ്ട്